ഇപ്പം നല്ല ചൂടുകാലമല്ലേ എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ഈ വെറും വെള്ളം കുടിക്കുന്നതിന് പകരം നമ്മളുടെ വീട്ടില് എന്തെങ്കിലൊക്കെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലെ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് അതില് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചേർത്തുകൊണ്ട് ഏലക്കായോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ മതി അത് ഒരുപാട് നമ്മള് കുടിക്കും അതായത് പച്ചവെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അപ്പം ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇന്നലെ നാരങ്ങയും പുതിനയും കൂടെ ചേർത്തിട്ടൊരു ജ്യൂസ് ആണ് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കാൻ എളുപ്പാണ് പിന്നെ ഒരു നാരങ്ങയും എടുത്തിട്ട് കുറച്ച് പുതിന എടുക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ച് എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള വെള്ളം കിട്ടും നമുക്ക് ജ്യൂസ് അത് നമുക്ക് ഒരു ഒരു ഗ്ലാസിന് പകരം രണ്ട് ഗ്ലാസ് തന്നെ എല്ലാവരും കുടിക്കും പിന്നെയിപ്പം ഞങ്ങള് ഇന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ളത് പിന്നെ ബീട്രൂട്ട് കൊണ്ടുള്ളതാണ് ബീട്രൂട്ട് പറയുമ്പോൾ വെറും ബീട്രൂട്ട് അല്ല ഞങ്ങള് ഉപയോഗിക്കുക അതില് കുറച്ച് റാഗി ചേർക്കും റാഗി ആദ്യം കുറച്ച് റാഗി പൊടിയെടുത്തിട്ട് കുറുക്കി പിന്നെ അതിലേക്ക് ഈ എന്തോയിടും വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് പിന്നെ അതില് ഈത്തപഴം ഉണ്ടെങ്കിൽ ഈത്തപഴത്തിൻ്റെ ഇത് ഇടും ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ പാല് ഉണ്ടെങ്കിൽ പാലും ഒഴിക്കാം അതു ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ലൊരു ജ്യൂസാണ് അത് നമുക്ക് കുറച്ചുകൂടി ഹെൽത്തിയായിട്ടുളളതാണ് റാഗിയൊക്കെ നമ്മുടെ ചൂടിനെ കുറക്കാനുള്ളതല്ലേ അത് ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് ഇപ്പം ഓരോ സമയങ്ങളിലും ഓരോന്ന് എന്നും വേറെ വേറെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കും എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്ന പഴങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങ് ഉണ്ടാക്കും ഈ മാങ്ങയും അതുപോലെ കൊണ്ടു വെച്ചിട്ട് ഉണ്ട് മാങ്ങ നമുക്ക് ഇതുപോലെ തന്നെ പഞ്ചസാരയും മാങ്ങയും മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അല്ലെങ്കില് ഈ മാങ്ങയും പഞ്ചസാരയും അതിലൂടെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പം ഞങ്ങള് രണ്ടു രീതിയിലും ഉണ്ടാക്കും പാല് കിട്ടുകയാണെങ്കിൽ പാല് ഒഴിച്ചു കൊണ്ട് അതിനനുസരിച്ച് പാലും മാങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്തടിച്ചിട്ട് ആണ് ഉണ്ടാക്കുക അപ്പോൾ അതുതന്നെ നല്ലൊരു പാനിയാണ് നമുക്ക് കുടിക്കാന് നല്ലൊരു ജ്യൂസാണ്